ഇന്ന് ഒരു ടി വി നോക്കാൻ ആണ് ഇല്ല വീട്ടിലേക്കാണ് ആ നമുക്ക് ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റ ആണ് വേണ്ടത് ഇല്ല ബഡ്ജറ്റ് കുഴപ്പം ഇല്ല നമുക്ക് ഇപ്പത്തെ എല്ലാ ഫെസിലിറ്റി ഉള്ള ടി വി ആയാമതി ഓക്കെ സോണീൻ്റയോ

വാറണ്ടി ആ ആ നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്തുതരില്ലെ സെർവീസെല്ലാം ഓ ആ ഓക്കെ ഓക്കെ വേറെ ആ ഒരു വാഷിംഗ് മെഷീൻ നോക്കണം ആ സാംസംഗിൻ്റ മതി അത് ആ അതെ ആ ഫ്രണ്ട് ഓപ്പൺ ഇരുന്നോട്ടെ തെർട്ടി കെജിൻ്റെ ആണ് വേണ്ടത്

ആ എന്നാൽ ഫുള്ളി ഓട്ടോമാറ്റിക്ക് മതി വേറെ വേറ ഏതെങ്കിലും കമ്പനി ഉണ്ടോ ആ ബൈ അത് എത്ര വെരുന്നുണ്ട് നമുക്ക് ഫ്രിഡ്ജ് എന്നാന്ന് എ സി ഇല്ല നമുക്ക് ഫ്രിഡ്ജ് തന്നെ നോക്കാം ഡബിൾ ഡോറ് അതെ ആ ഇപ്പം നമ്മക്ക് മൂവിംഗ് ആയിട്ട് ഉള്ളത് ഏത് ആണ് കൂടുതല് ആ അപ്പം എൽജീടെ നോക്കാം പ്രൈസ് അതെ ആ മെറൂൺ മെറൂണിന് എത്ര വരുന്നുണ്ട് ഓക്കെ ഓക്കെ ആ ഫ്രീസറ് ആ ഫെസിലിറ്റി എല്ലാം കുഴപ്പം ഇല്ലല്ലൊ ഫ്രിട്ജിൻ്റെ സ്പേസ് ഉള്ളത് അല്ലെ അല്ല ഇത് ഇപ്പം എല്ലാത്തിലും വീഗാർഡ് ആയിത്തന്നെ ഉണ്ടല്ലൊ അല്ലെ വോൾട്ടേജിൻ്റ പ്രശ്നം വരുവാണേൽ ഇല്ല നമുക്ക് ഡൗൺ പേ ചെയ്യാം അഡ്രസ്സ് ആ ഓക്കെ